വയനാട്ടിൽ കൂടുതലും കൃഷി ചെയ്യുന്നത് അരിയാണ് കൂടുതലായിട്ടും അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നല്ല ഇനം നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അതായത് മട്ട അങ്ങനത്തെ കുറേ അരികളുണ്ട് അതായത് പച്ചരി അങ്ങനത്തെ കുറേ അരികളുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല ഇനം നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ മുളപ്പിക്കാൻ വയ്ക്കണം നല്ലൊരു ചാക്കിൽ കെട്ടിയിട്ട് ഞാൻ എന്താ ഇടയ്ക്ക് ഒന്ന് വളം എന്താ പറയുക വളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ ചാക്കിൽ അതായത് ചണച്ചാക്കിൽ വയ്ക്കാൻ ചണച്ചാക്കിൽ വച്ചിട്ട് ഒന്നു കെട്ടിയിട്ട് മൂടി വച്ചു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മുളയ്ക്കും മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല എന്താ പറയുക നല്ല സ്ഥലം നോക്കിയിട്ട് അതായത് വയലിൽ വെള്ളം എല്ലാം റെഡി ആണ് കറക്ട് അളവിൽ ഒക്കെ ആണെങ്കിൽ മെല്ലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിതറുക അതായത് നമ്മൾ എന്താ പറയുക വിത്ത് പാകിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് പൊങ്ങും പൊങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയുക ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി വേറെ വല്ല ചെടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ച് എടുക്കുക അത് പറിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഹൈറ്റ് വച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ അത് പറിക്കുക പറിച്ചെടുത്തിട്ട് ഒരേ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക നാട്ടി വയ്ക്കുകയെന്ന് പറയും നാട്ടി വച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് കാട് വരികയാണെങ്കിൽ അതൊന്നു പറിക്കുക പിന്നെ നെല്ല് കൊയ്യുക കൊയ്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും വിൽക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യാം പിന്നെ ഉള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് ഗോതമ്പ് കൃഷി അങ്ങനെ വയനാട്ടിൽ ഇല്ല ഇവിടെ അങ്ങനെ കാണാറില്ല പരുത്തിക്കൃഷിയും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ധാന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷികൾ കുറവാണ് പിന്നെ ഇപ്പോൾ പയറു വർഗ്ഗങ്ങളൊക്കെ ഉണ്ട് പയർ മമ്പയർ ഉണ്ട് പിന്നെ വള്ളിപ്പയർ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ അതായത് നമ്മൾ ഇപ്പോൾ ഈ കൃഷി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പയർ എന്തെങ്കിലും ഒക്കെ നടാറുണ്ട് പിന്നെ ഏലം വലിയ രീതിയിൽ കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ നാട്ടിലേക്ക് വയനാട്ടിൽ കുറവാണ് താഴെ നാട്ടിലേക്കാണ് ഏലം കൃഷി വരുന്നത് പിന്നെ തെങ്ങിൻ തെങ്ങ് ഉണ്ട് തെങ്ങ് അത്യാവശ്യം കൃഷി വയനാട്ടിലും ഉണ്ട് പുറത്തും ഉണ്ട് അത്യാവശ്യം കൃഷി തെങ്ങ് ഇണ്ട് ഇഞ്ചി കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പൊതുവേ കൂടുതലും കാണുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ എന്താ പറയുക നിൽക്കുന്ന ആൾക്കാർ തന്നെ കൂടുതലും നമ്മൾ കർണ്ണാടക ആ ഭാഗത്തേക്ക് പോയിട്ട് ഇഞ്ചിക്കൃഷി ചെയ്യാറുണ്ട് ഇഞ്ചിക്ക് ഇപ്പോൾ അത്യാവശ്യം വിലയും ഉണ്ട് ഇഞ്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അത് എന്താ പറയുക അതിൻ്റെ വിത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു അതായത് ഒരു സ്ഥലം ഇങ്ങനെ സെലക്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ വെട്ടി അതിനകത്ത് ഇഞ്ചി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം മാക്സിമം ആ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറച്ചിട്ട് നമ്മൾ നേരെ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക അത്യാവശ്യം കിൻ്റലിനാണ് പൈസ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും